കഴിഞ്ഞ ഞായറാഴ്ച അവധി ദിവസം ആയതിനാൽ ഒരു ബിരിയാണി ഓർഡർ ചെയ്യാം എന്ന് കരുതി ഞാൻ നാല് ബിരിയാണി ഓർഡർ ചെയ്തു ഏകദേശം രാവിലെ ഒരു പതിനൊന്നരയോട് കൂടിയാണ് ഓർഡർ ചെയ്തത് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലോടു കൂടി ഓർഡർ വീട്ടിൽ എത്തുമെന്ന് അവർ മെസേജും തന്നു പന്ത്രണ്ടര ആയപ്പോഴേക്കും ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങി പന്ത്രണ്ടര കഴിഞ്ഞു ഏകദേശം ഒന്നര വരെ കാത്തിരുന്ന് എന്നിട്ടും യാതൊരു അഡ്രസ്സും ഇല്ല ഒന്നരയായപ്പോൾ ഫോൺ എടുത്ത് ഡെലിവറി ബോയിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു പക്ഷെ യാതൊരു റെസ്പോൻസും കിട്ടുന്നില്ല വീണ്ടും രണ്ട് മണിവരെ വെയിറ്റ് ചെയ്തു രണ്ട് മണിക്ക് വീണ്ടും കോൾ വിളിച്ചു പക്ഷെ ഫോൺ എടുക്കുന്നേ ഇല്ല അത് കഴിഞ്ഞ് നേരെ സ്വിഗ്ഗിയുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ വിളിച്ചു ഉണ്ടായ സംഭവങ്ങൾ എല്ലാം വിവരിച്ചു അവർ കാര്യം എന്താണെന്ന് തിരക്കി ഉടനെ തന്നെ തിരികെ വിളിക്കാം എന്ന് പറയുകയും ചെയ്തു